ഹലോ ആരാണ് അതെ അതെ ആ ഓക്കെ പറഞ്ഞോളൂ സാർ

സാറിന് എന്തേലും ഫാക്ടറി തുടങ്ങാനായിട്ടുള്ള ഉദ്ദേശമാണോ അതോ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും വേണ്ടി മാത്രായിട്ടാണോ ഓക്കെ സാർ ഓക്കെ സാർ അപ്പം അപ്പം നമുക്ക് മെയ്നായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ മെയ്നായിട്ടുള്ളത് കോട്ടയം ഏരിയയിലാണ് നമ്മുടെ കമ്പനി മൂന്നാറ് സൈഡില് വർക്ക് ചെയ്യുന്നെന്ന് മാത്രമെ ഉള്ളു അപ്പം മെയിനായിട്ടും കോട്ടയത്ത് ലാട്രിക് സോളിഡാണ് ഈ റബ്ബറിൻ്റെ വളർച്ചക്ക് വേണ്ടി ഏറ്റവും കൂടൽ ആവശ്യമുള്ള മണ്ണ് അത് നമ്മളുടെ കേരളത്തിൽ കൂടുതലായത് കൊണ്ടാണ് കേരളത്തിൽ റബ്ബർ കൃഷിക്ക് ഇത്രയും പ്രാധാന്യം ഉള്ളത്

റബ്ബറ് ഇപ്പം പല ഹൈബ്രിഡ് വെറൈറ്റികള് ഇപ്പം നമ്മുടെ നാട്ടില് അവൈലബിളാണ് അതായത് പണ്ട് കാലങ്ങളിൽ വർഷങ്ങള് ഇത്ര വർഷം നീണ്ടുനിന്ന് റബ്ബർ ചെത്താൻ സാധിക്കുന്ന മരങ്ങൾക്ക് പകരം ഇപ്പോൾ ഹൈബ്രിഡായിട്ടാണ് ഉള്ളത് പന്ത്രണ്ട് മാസം കൊണ്ടുതന്നെ നമുക്ക് വളർന്നുവന്ന് വലുതായി അതിൽ നിന്നും റബ്ബറ് നമുക്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മരങ്ങൾ ഇപ്പം നമുക്ക് നാട്ടിലുണ്ട് അപ്പം ഇപ്പം മെയിൻലി കർഷകര് ലാഭത്തിന് വേണ്ടിയിട്ട് അതിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതാകുമ്പം ഈ ഹൈബ്രിഡ് ആവുന്നതുകൊണ്ട് തന്നെ ഉള്ള അതായത് ഈൽഡ് കുറവാണ് കുറച്ച് ഈൽഡ് അത്യാവശ്യം ഉണ്ട് ലൈഫ് പ്ലാൻ കുറവാണ് പിന്നെ രോഗപ്രതിരോധശേഷി അങ്ങനെ ഉള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാര് ഇതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം സാറിന് ഇതിൻ്റെ തൈകള് നമുക്ക് നമ്മുടെ നമുക്ക് തന്നെ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കി വിൽക്കുന്ന ഫാക്ടറികളുണ്ട് അവിടുന്ന് തൈകള് വേണമെങ്കിൽ അതിൻ്റെ മോഡല് സാറിന് വേണമെങ്കിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ സാറിന് ഇവിടെ നേരിട്ട് വന്ന് അവിടെ നിന്ന് തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം ഇപ്പം ഹൈബ്രിഡ് ആവുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിങ് ഒക്കെ നിങ്ങൾക്ക് നേഴ്സറിയിൽ നിന്നും മേടിക്കുന്നതായിരിക്കും നല്ലത് സാർ ഓക്കെ സാർ സാറിൻ്റെ സാറിൻ്റെ അവൈലബിലിറ്റി പോലെ സർ എന്നാണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞാൽ മതി നമുക്ക് നമ്മള് തന്നെ അവിടെ സാറിനെ വന്ന് പിക്കിത് സാധനങ്ങളും കാര്യങ്ങളും ഡീറ്റൈലായിട്ട് കാണിച്ചുതരുന്നതായിരിക്കും സാർ നമുക്ക് നമ്മളിപ്പം എറൌണ്ട് നമുക്കൊരു പതിനായിരം മരങ്ങളാണിപ്പോൾ ഉള്ളത് ആ പതിനായിരം ഒരു ഒരു ഒരു മരത്തിൽ നിന്ന് എറൌണ്ട് നമുക്കൊരു ഫോർ ഫിഫ്റ്റി എം എൽ ഒക്കെ കിട്ടാൻ ചാൻസുള്ളു ഒരു ഡേ അപ്പം അതായത് രാവിലേയും വൈകിട്ടത്തേക്കുവാണ് അപ്പം രണ്ട് നേരമാണ് നമ്മള് കളക്ട് ചെയ്യുന്നത് അപ്പം ഫോർ ഫോർ ഫിഫ്റ്റി ഒക്കെയാണ് മാക്സിമാണ് സാർ പിന്നെ ഓരോ ഓരോന്നും കട്ടിങ് നമ്മളിപ്പം മെയിനായിട്ട് ഇപ്പം മെഷീനറീസ് കൂടുതല് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതില് പ്രൊഡക്ടിന് നമുക്ക് ആ ഈൽഡ് കുറവായിട്ടിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് തൊഴിലാളികള് തന്നെ വേണം സാർ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിപ്പിച്ചാലേ അതില് ഈ ആ നമുക്ക് മെഷിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അത്ര റിസൾട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മളത് മാൻ പവറ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ അവർക്ക് നല്ല ആ ചോദിച്ചുള്ളു സാർ സാറെ അത് നമുക്ക് എറൌണ്ട് മൂന്ന് വർഷം നാല് വർഷം കൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ അതായത് പഴയ മരങ്ങള് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഹൈബ്രിഡ് മരങ്ങള് വന്നതിന് ശേഷം ഒരു വർഷം കൊണ്ടൊക്കെ നമുക്ക് ഈൽഡ് കിട്ടി തുടങ്ങുന്ന മരങ്ങളുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടവിളയായിട്ട് അതായത് ഇപ്പം റബറുകൾ ഇത്ര അഞ്ച് മീറ്ററ് അഞ്ച് മീറ്ററ് ഗ്യാപ് നടത്തിലാണ് നമ്മള് നടുന്നത് അപ്പം അതിൻ്റെ ഇടക്ക് ഇടവേള ആയിട്ട് വേറെ പയറോ കുരുമുളകോ അങ്ങനെ ഉള്ള സാധനങ്ങൾ നമ്മളിപ്പം കൃഷി ചെയ്ത് ലാഭങ്ങളുണ്ടാക്കുന്നുണ്ട് ഈ ഒരു വർഷം നമുക്ക് അതിൽ നിന്നെന്തേലും ലാഭം ഉണ്ടാക്കാൻ സാധിക്കും സാർ കുരുമുളകിൻറ്റേക്കെ ഇടവേളയായിട്ട് ചെയ്യാറുണ്ട് സാർ നമ്മള് ആ ഉണ്ട് പക്ഷെ നമുക്ക് ആ മരത്തിൻ്റെ കട്ടിങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കത്തില്ലാട്ടോ സാർ

എപ്പം സാർ നമുക്ക് ഇപ്പം പതിനായിരം മരങ്ങള് ഒരു മൂന്ന് ഏക്കറിലായിട്ട് മാത്രമെ നമുക്ക് ഉള്ളു നമ്മളിപ്പം അത് വിപുലികരിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല കാരണം റബ്ബറ് ഇപ്പം പല ഇഷ്ടംപോലെ ഉണ്ട് അത് മാർക്കറ്റ് ഡൽ ആയതുകൊണ്ട് നമ്മളത് കുറച്ചാണ് എടുക്കുന്നത് ഓക്കെ സാർ ഓക്കെ ശരി